എൻ്റെ പേര് ഷൈന ഞാൻ ഇപ്പം വിളിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി എന്നു പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഓക്കെ ഞാൻ ഇപ്പോൾ ഉള്ളത് എറണാകുളത്ത് ഞാൻ ജസ്റ്റ് ഒര് ടൂറിന് വന്നതാണ് അപ്പോൾ നിങ്ങളെ ഈ ട്രീറ്റ്മെൻ്റിനെ കുറിച്ചൊക്കെ കേട്ടിരുന്നു

ആ എനിക്ക് ഓൾറെഡി എനിക്ക് നടുവിന് ചെറിയൊരു പെയിൻ ഉള്ള ആളാണ് ഞാൻ ഓൾറെഡി ട്രീറ്റ്മെൻ്റ് ചെയ്ത ആളാണ് പക്ഷെ എനിക്ക് അതിനെക്കൊണ്ടൊന്നും വലിയ ഒരു മാറ്റം വന്ന് വന്നിട്ടില്ല നിങ്ങളെ ഈ ആ ക്ലിനിക്കിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ എറണാകുളം വന്നേരം നിങ്ങളടുത്ത് ഒന്ന് വരാമെന്ന് കരുതിയിട്ടാണ് എനിക്കിപ്പോൾ യാത്ര ചെയ്തത് കൊണ്ടാണോയെന്ന് അറിയില്ല നല്ല പെയിൻ ഉണ്ട് ഓക്കേ അപ്പോൾ നിങ്ങളെ ട്രീറ്റ്മെൻ്റും കാര്യങ്ങളും ഒക്കെ എങ്ങനെ ആണ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത് എനിക്ക് അതിന് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ട് അല്ലാതെ ഉള്ള ട്രീറ്റ്മെൻ്റ് എന്തെങ്കിലും ഉണ്ടോ ഞാൻ ഇപ്പോൾ വന്നിട്ട് ജസ്റ്റ് മരുന്ന് വാങ്ങിച്ചിട്ട് പിന്നെ ഒരു നെക്സ്റ്റ് മന്ത് എനിക്ക് വെക്കേഷൻ ടൈമിൽ വന്നിട്ട് ട്രീറ്റ്മെൻ്റ് ചെയ്യാൻ പറ്റുമോ ഓക്കെ ഇത് മരുന്ന് കഴിക്കുമ്പോൾ എങ്ങനെ പത്ത്യത്തിൽ നിൽക്കണോ അത് ചിക്കൻ അങ്ങനെ ഫിഷ് അങ്ങനെ ഉള്ള ഐറ്റംസുകൾ

ഓക്കേ ഓക്കേ ഞാൻ ഇപ്പോൾ എന്തായാലും എറണാകുളത്തുണ്ട് ഞാൻ ഈ എനിക്ക് ഇന്ന് അപ്പോയിൻ്റ്മെൻ്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ ഇന്ന് വരാം ഓക്കെ അങ്ങനെ ആണെങ്കിൽ ഞാൻ നാളെ രാവിലെ പത്ത് മണിക്ക് വരാം പത്ത് മണിക്ക് വരുന്നതിന് മുന്നേ എനി വിളിക്കണോ ഓക്കെ കുഴപ്പമില്ല കുഴപ്പമില്ല എന്നാൽ ഞാൻ നാളെ മോർണിംഗ് ഒരു ടെൻ ഓ ക്ലോക്കിന് വരാം

ഓക്കെ എൻ്റെ കയ്യിൽ പേപ്പേഴ്സ് ഉണ്ട് ഞാൻ വരുമ്പോൾ അത് എടുക്കാം അതിന് ശേഷം ഞാൻ അവിടെ വന്നതിന് ശേഷം നമുക്ക് ബാക്കി രണ്ടാഴ്ച നിൽക്കണ്ടേ പറ്റുകയാണെങ്കിൽ ഞാൻ നോക്കാം അങ്ങനെ ആണെങ്കിൽ നാളെ നിൽക്കാം ഡേറ്റ് എടുക്കാം ഓക്കെ അപ്പോൾ അത് നിങ്ങൾ അവിടെ നിന്ന് ട്രീറ്റ്മെൻ്റ് എടുത്ത ആൾ നല്ലൊരു അഭിപ്രായം പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നത് ഓക്കേ ഓക്കേ നമ്മൾ അവിടെ ടു വീക്ക്സ് വന്ന് സ്റ്റേ ചെയ്യുകയാണെങ്കിൽ കൂടെ ആരെങ്കിലും നമ്മളെ കൂടെ ആരെങ്കിലും വേണം എന്ന് നിർബന്ധം ഉണ്ടോ ഓക്കേ ഓക്കേ അങ്ങനെ ടു വീക്ക്സ് ഒരു പാക്കേജ് ആയിട്ട് ആണോ അതോ പാക്ക് എമൗണ്ട് വരുന്നത് ആ ആ ഓക്കേ ഓക്കേ ഓക്കേ എന്നാൽ നാളെ രാവിലെ ഞാൻ പത്ത് മണിക്ക് വരാം ആ ഷൈന തെർട്ടി സിക്സ്

ഓ ഓക്കേ താങ്ക് യു